ഇവിടുന്ന് മല്ലാപള്ളി തിരുവല്ല വഴി ചെങ്ങന്നൂർ പോകുന്നൊരു സമയത്താണൊരു വീതി കുറഞ്ഞ പാലത്തിൽ കൂടി ഒരു കോർഷ് ട്രാൻസ്പോർട്ട് ബസ് കയറി വരുകയായിരുന്നു അപ്പോളെ ട്രാൻസ്പോർട്ടിലെ അത് ഉണ്ടായത് ജീവഹാനി വരുന്ന രീതിയിലായിരുന്നു വീതി കുറഞ്ഞ പാലം ആയിരുന്നതുകൊണ്ട് അത് അത്ഭുതകരമായിട്ടാണ് ദൈവം അവിടുന്ന് എന്നെ രക്ഷപെടുത്തുക അല്ല തിരിച്ച് പാളിച്ചകളോടെ തിരിച്ച് രണ്ട് പെട്ടിയിലൊട്ടിക്കുക പെടും എന്തായാലും കൊള്ളാം അത്ഭുതകരമായിട്ട് ഞാൻ അവിടുന്ന് രക്ഷപെട്ടു അതുപോലെ തന്നെ ഒരു ദിവസം ഇങ്ങനെ യാത്ര പോയിക്കോണ്ടിരുന്നപ്പോൾ ടയർ പഞ്ചർ ആയി അത്ഭുതകരം എന്ന് പറയട്ടെ ഒന്നും സംഭവിക്കാതെ കണ്ടേ അതേ റോഡിൽ തന്നെ നിൽക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെ അൽപ്പം രണ്ട് അപകടങ്ങളെ ബൈക്കുമായിട്ട് യാത്രയിൽ ടയർ പഞ്ചർ ആയതുകൊണ്ട് ആണി കയറി അങ്ങനെ പഞ്ചർ ആയിപ്പോയതാണ് അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് മറ്റേത് ബസ്സിൽ കയറി വന്നതുകൊണ്ട് അതിൽ നിന്ന് പാലത്തിന് വീതി കുറവായതുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാറാകുന്നതിന് മുൻപുതന്നെ വണ്ടി എടുത്തതാണ് പക്ഷേങ്കിൽ അത്ഭുതകരമായിട്ട് അവിടുന്നൊക്കെ രക്ഷപ്പെട്ടു അതെന്നെ ഇന്ന് എൻ്റെ ഓർമ്മയിൽ ഇന്നും നിൽക്കുന്നതാണ് ഈ രണ്ട് മേഖലകൾ വണ്ടിയിലും യാത്ര ചെയ്യുമ്പോൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ രസകരമായിട്ടുള്ള കാഴ്ച്ചകൾ അല്ലെങ്കിൽ ഇതൊക്കെ കാണുവാനായിട്ടും സാധിക്കും അതുപോലെ തന്നെ ഉടനെ അപകടങ്ങൾ നിറഞ്ഞതാണ് രണ്ടു രണ്ട് വീലേ ഉള്ളതുകൊണ്ട് ശ്രദ്ധയോടെ ഇത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടം വിളിച്ചുവരുത്തുന്നതിന് ഒരു മേഖലയാണ് ബൈക്ക് യാത്ര വഴിയൊക്കെ ദുഷ്കരമാണ് എങ്കിലും ഇത് ഒരു ആസ്വാദ്യകരവും ആയതുകൊണ്ട് പറ്റുന്ന ഒരു അനുഭവമായിട്ട് ബൈക്ക് ബൈക്ക് യാത്ര മാറുമെന്നുണ്ട് അതുകൊണ്ട് ബൈക്ക് യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവവും ആയൊരു സന്തോഷകരമായ യാത്രയുണ്ട് അതുപോലെ തന്നെ വേദനിപ്പിക്കുന്ന യാത്രയുണ്ട് അപകടങ്ങൾ വരുമ്പോൾ അതൊരു വേദനയുടേതായിട്ട് മാറുന്നു നല്ല നല്ല കാഴ്ച്ചകളും കാണുവാനും കാണുവാനും ഗ്രഹിക്കുവാനും സാധിക്കുമ്പോൾ അതൊരു സന്തോഷകരമായിട്ട് യാത്രയായിട്ട് മാറുന്നുണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് ബൈക്ക് യാത്രയിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ബൈക്ക് കൂടുതൽ ഉപയോഗിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നും ഉണ്ട് ഈ ബൈക്ക് യാത്ര മറ്റുള്ളവരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്